ഞാൻ ഒരു പാട് തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ജീവൻ തന്നെയാണ് എൻ്റെ ജീവനെ പോലെ തന്നെ ഞാൻ കൊണ്ട് നടക്കുന്നൊരു ലോകമാണ് പാട്ട് ആ അത് ഏത് ഭാഷയിലുള്ള സംഗീതമായാലും അത് ഏത് രീതിയിലുള്ളതായാലും ഏത് തലത്തിലുള്ളതായാലും ഞാൻ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നു പിന്നെ അത് ഇപ്പോൾ ക്ലാസ്സിക്കൽ ഗാനമായിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ബോളിവുഡോ അങ്ങനെയുള്ള സിനിമ സിനിമ ചലച്ചിത്രത്തിലെ പാട്ടുകളായിക്കോട്ടെ മെലഡീസായിക്കോട്ടെ ഏത് പാട്ടായാലും ഞാൻ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് കൂടുതലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മലയാളം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ് പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ് കൂടുതലും ഞാൻ ഇന്നും മണിരത്നം ആ മഹാൻ മഹാ മനുഷ്യനായ ആ വ്യക്തിയുടെ പാട്ടുകളിൽ തന്നെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് അത് മലയാളമായാലും തമിഴായാലും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതങ്ങൾ കൂടുതലും അതുപോലെ തന്നെ ഞാൻ പാട്ടുകൾ കേൾക്കുന്നത് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും സ്പീക്കറ് വച്ച് അതിൽ ഞാൻ പാട്ട് കേട്ട് ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ടി വിയിലോ അത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചലച്ചിത്രം കാണാറുണ്ടെങ്കിലും ഏത് ഏതിലാണെന്നൂണ്ടെങ്കിലും ഞാനാ സംഗീതം ഒരുപാട് ആസ്വദിച്ച് തന്നെയാണ് കേൾക്കുക ഒരു ചലചിച്ചിത്രം ആയിക്കോട്ടെ അതിൽ ഏറ്റ്വും കൂടുതൽ ചിത്രം കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പാട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ അതിൽ ലയിച്ച് പോവും ഞാൻ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കും ഞാൻ ഒരു പാട് ആപ്പുകളിൽ ആപ്പുകളിൽ കൂടി സംഗീതം കേൾക്കാറുണ്ട് എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്ത പ്രാന്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പാട്ടുകളും കേൾക്കാറുണ്ട് അത് എവിടെയാണ് എന്നുണ്ടെങ്കിലും ഞാൻ അത് ആസ്വദിച്ചിരിക്കും